ഹലോ ഗ്രീൻ ഹിൽ പബ്ലിക് സ്കൂൾ ആണ് ആരാണ് ആരാണ് സംസാരിക്കുന്നത് ആ ആ എൽ കെ ജിയും രണ്ടാം ക്ലാസും രണ്ട് രണ്ട് കുട്ടികൾ ഉണ്ട് അല്ലേ ആ പെൺകുട്ടി ആണോ ആൺകുട്ടി ആണോ ആ ആ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ എന്ന് പറയുമ്പം ടി സി ഒക്കെ ഉണ്ടോ വേറെ പഠിപ്പിച്ച സ്കൂളിലെ ടി സി ഒക്കെ ഉണ്ടോ ആ ആ അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഡൊണേഷൻ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡൊണേഷൻ ഉണ്ടാവും ഇത് എത്രയാണെന്ന് വെച്ചാൽ വന്നിട്ട് പറയാം അതിൻ്റെ ഡീറ്റൈൽസ് ഒക്കെ വന്നിട്ട് ആണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിനെ പറ്റി പറയാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഡൊണേഷൻ ഉണ്ട് അത് എത്രയാണ് എമൗണ്ട് അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ ഇവിടുന്ന് അറിയിക്കും ഡൊണേഷൻ ഉണ്ടാവും പിന്നെ പി ടി എ ഫണ്ട് ഈ ഡൊണേഷന് പുറമെ പി ടി എ ഫണ്ടും അടയ്ക്കേണ്ടി വരും നിങ്ങൾ പിന്നെ അതുപോലെ ഇപ്പോൾ സ്കൂളിൽ തന്നെ നിങ്ങൾ ബസ്സിൽ ഒക്കെ ഇവിടെ ഇവിടുന്ന് ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ബസിലാണ് വിടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോയിൽ ആണ് വിടുന്നതെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കുട്ടികളെ നോക്കാനും പിന്നെ ക്ലാസ്സിൽ ആക്കി കൊടുക്കാനൊക്കെ പിന്നെ അതുപോലെ ഇവിടുന്ന് തന്നെ യൂണിഫോം അതുപോലെ ബുക്ക് ഒക്കെ ഇവിടുന്ന് തന്നെ നൽകുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഈ ഡൊണേഷനും പി ടി എ ഫണ്ടിന് പുറമെ അതിനും വേറെ പൈസ നിങ്ങൾ അടയ്ക്കണം അപ്പോൾ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഒരു പത്ത് ഇരുപത്തി അയ്യായിരം രൂപയാവും ഒരാൾക്ക് ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്ക് അൻപതിനായിരം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും പക്ഷേ അത് ഒത്ത് തന്നെ അടയ്ക്കേണ്ട ക്ലാസ് ഒരു ഇപ്പോൾ നിങ്ങൾ ഓരോ മാസം ഓരോ മാസം അടച്ച് തീർത്താൽ മതി ആറ് മാസത്തിനുള്ളിൽ അടച്ച് തീർക്കണം പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ദിവസം ഒരു അയ്യായിരം രൂപ അടയ്ക്കേണ്ടി വരും രണ്ടാൾക്കും കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് പിന്നെ അടയ്ക്കേണ്ടി വരും അപ്പോൾ ബാക്കിയുള്ള ആ നിങ്ങൾക്ക് ബുക്ക് ഇവിടുന്ന് കിട്ടും നോട്ട് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും രണ്ടും ഇവിടുന്ന് കിട്ടും അത് അതിൻ്റെ പിന്നെ പൈസ അടയ്ക്കേണ്ടി വരും അതുപോലെ യൂണിഫോം ഇവിടുന്ന് ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യും പക്ഷേ അതിൻ്റെ ഒക്കെ പൈസ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ അതൊക്കെ തന്നെ അടയ്ക്കേണ്ടി വരും പിന്നെ ഡൊണേഷൻ മാത്രം ആണ് നിങ്ങൾക്ക് ആറ് മാസത്തിനുള്ളിൽ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ ബാക്കി ഒക്കെ അന്ന് തന്നെ അടയ്ക്കേണ്ടി വരും പിന്നെ കുട്ടികളുടെ അടുത്ത് കൊടുത്തുവിട്ടാൽ മതി ഒരു പിന്നെ ഓരോ മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് തന്നെ തന്നാൽ മതി അത് എങ്ങനെ ആണോ നിങ്ങളുടെ ഇഷ്ടം പിന്നെ വേറെ എന്തെങ്കിലും അറിയണോ

ആ നിങ്ങൾ നേരിട്ട് ആ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ എല്ലാ ഡീറ്റൈൽസും നിങ്ങൾക്ക് കിട്ടും സ്കൂളിനെ പറ്റി വേണമെങ്കിലും എ എന്താണെന്ന് വെച്ചാണെങ്കിലും ഇവിടെ പിന്നെ വിജയ ശതമാനം എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ഓരോ കുട്ടികളുടെ അടുത്തും ചോദിച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ അടുത്ത് അനേഷിക്കാവുന്നതാണ് അതുപോലെ ഓഫീസിൽ ആണെങ്കിലും ചോദിച്ചാൽ മതി പിന്നെ എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ആ ആ പിന്നെ അതുപോലെ ലഞ്ച് ഒക്കെ നിങ്ങൾ കൊടുത്ത് ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുമ്പോൾ മീൻ അതുപോലെ മുട്ട അതൊന്നും കൊടുത്ത് വിടരുത് അതെന്ന് വെച്ചാൽ അത് സ്മെൽ അടിക്കും പിന്നെ ചില കുട്ടികൾക്ക് ഒന്നും അത് പറ്റില്ല അത് ഉച്ചയ്ക്ക് ലഞ്ച് ഒക്കെ കൊടുത്ത് വിടുമ്പോൾ പിന്നെ ഫിഷ് അതുപോലെ ആ ഐറ്റംസ് ഒന്നും ഈ സ്മെൽ വരുന്ന ഐറ്റംസ് ഒന്നും കൊടുത്ത് വിടരുത് അതുപോലെ പത്ത് മണിക്ക് സ്നാക്ക്സ് കൊടുത്ത് വിടണം അത് നിർബന്ധം ആണ് പിന്നെ ചില കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ വരുമ്പോൾ പിന്നെ സ്നാക്സ് എന്താണ് ഇഷ്ടപ്പെട്ട ഐറ്റം അത് നിങ്ങൾ കൊടുത്ത് വിടണം പിന്നെ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളെ നോക്കാൻ വേറെ ടീച്ചേഴ്സ് കൂടാതെ വേറെ ഒരു പിന്നെ ആയ ഉണ്ടാവും അപ്പോൾ അതിനും നിങ്ങൾ പേടിക്കേണ്ട കുട്ടികൾ അപ്പോൾ നല്ല നല്ല നോക്കുന്ന പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ആണ് ടീച്ചേഴ്സ് ഒക്കെ നല്ല ടീച്ചേഴ്സ് ആണ് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ നേരിട്ട് നാളെ സ്കൂളിൽ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി നാളെ വർക്കിങ് ഡേ ആണ് ഇവിടെ വന്നിട്ട് അന്വേഷിച്ചാൽ മതി പിന്നെ ബാക്കിയുള്ളത് അന്നേഷ് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കണം എന്ന് പറയില്ല പിന്നെ അടുത്ത മാസം രണ്ടാം തീയതിക്ക് ഉള്ളിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരും ഇപ്പോൾ പതിനഞ്ചാം തീയതി ആയിട്ട് അല്ലേ ഉള്ളൂ ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം പിന്നെ അഡ്മിഷൻ കിട്ടില്ല കേട്ടോ കുട്ടികൾ ഇപ്പോൾ ഫുൾ ആയാൽ അഡ്മിഷൻ കിട്ടില്ല അപ്പോൾ അതിന് മുന്നേ വന്നിട്ട് എടുക്കണം

എന്നാൽ എന്നാൽ വേറെ ഒന്നുമില്ലല്ലോ നിങ്ങൾ വന്ന് അന്വേഷിച്ച് നോക്ക് നാളെ ഒന്ന് വന്നിട്ട് എന്നാൽ ശരി